നമ്മുടെ സംസ്ഥാനങ്ങളിൽ വ്യവസായങ്ങൾ പ്രാദേശിക വ്യവസായങ്ങൾ ഒരുപാട് ഉണ്ട് ഇപ്പോൾ നമ്മുടെ കൃഷി കൃഷി അതുപോലെ തന്നെ വ്യാപാരങ്ങൾ അതുപോലെ തന്നെ ഫാക്ടറികൾ അങ്ങനെയൊക്കെ അപ്പോൾ തൊഴിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണെങ്കിൽ ഫാക്ടറികളിലൊക്കെ പോകുന്നതും കൃഷി ചെയ്യുന്നതൊക്കെയാണ് നല്ലത് കാരണം എന്താണെന്നു വച്ചാൽ കൃഷി നെല്ല് വിതയ്ക്കുക കൊയ്യുക അതിനൊക്കെ ഒരുപാട് ആൾക്കാർ വേണം ഫാക്ടറിയിലാണെങ്കിലും ഇപ്പോൾ തേയില ഫാക്ടറി എടുത്താൽ തേയില തേയില ഇല നുള്ളാൻ പിന്നെ അത് അവിടെ കൊണ്ടുപോയിട്ട് വേർതിരിച്ചെടുക്കാൻ പിന്നെ അത് ആ മെഷീനിൽ ഇട്ട് തേയിലപ്പൊടി ആക്കിയെടുക്കാൻ അത് പിന്നെ പാക്ക് ചെയ്യാൻ ഒക്കെ ആൾക്കാരെ ആവിശ്യമാണ് അപ്പോൾ വ്യവസായങ്ങൾ അതൊക്കെയാണ് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ അവർ ഒരുപാട് മുന്നോട്ടു വയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെത്തന്നെ കൃഷി ഇപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം എന്താ വച്ചാൽ കൃഷിയെ എല്ലാവരും കൃഷിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിൽനിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇപ്പോൾ എല്ലാവരും അതിൽനിന്നോ അതിനൊന്നും ആരും മെനെക്കെടാത്തതുകൊണ്ടാണ് സമ്പത്ത് വ്യവസ്ഥയ്ക്ക് കോട്ടങ്ങളൊക്കെ സംഭവിക്കുന്നത്